സ്കൂളിന് പുറത്തുള്ള ട്യൂഷൻ വളരെ നല്ലതാണെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വച്ചാൽ നമ്മൾ ഒരു ക്ലാസ്സിൽ നമ്മൾ എയ്ഡഡ് മേഖല അല്ലെ ഗവൺമെൻ്റ് സ്കൂളിലെ ക്ലാസ്സിൽ പിള്ളേർ പഠിക്കുമ്പോൾ പത്തറ് അമ്പത് കുട്ടികൾ നാൽപ്പത് കുട്ടികൾ ഇരിക്കുമ്പം നമുക്ക് ഓരോരുത്തരെയും ശ്രദ്ധിച്ചു ഓരോന്നായിട്ട് ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് നമ്മൾ കുറേ പിള്ളേർ പഠിക്കുന്നവർ അങ്ങ് പഠിച്ചു പോകുന്നു അതിന് ഇടയിൽ ഒരു കുറേ പിള്ളേർ പഠിക്കാത്തവരുണ്ടല്ലോ അവരേയും കുടെ കയറ്റിക്കൊണ്ട് വരണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ പോലും അത് പ്രായോഗിഗമായിട്ട് നടക്കാൻ പാടാണ് അപ്പം ട്യൂഷന് പോയി പഠിക്കുകയാണെങ്കിൽ അവർ ഒരു ഇവിടെ നിന്ന് ഒരു അടിസ്ഥാനം കുറച്ചൊക്കെ അവർക്ക് കിട്ടുമല്ലോ പിന്നെ അവർ ഒരാളെ വിളിച്ചിരുത്തി ട്യൂഷൻ ടീച്ചറ് ഓരോരുത്തരെ അടുത്ത് വിളിച്ചിരുത്തി പറഞ്ഞു കൊടുത്താണ് പഠപ്പിക്കുന്നത് അപ്പം അങ്ങനെ അത്യാവശ്യം പറഞ്ഞു കൊടുത്തപ്പോൾ ഒരു സ്പെഷ്യൽ കെയറ് കിട്ടുമ്പോൾ ഏത് കുട്ടിയും പഠിക്കാത്ത കുട്ടിയും പഠിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർ നന്നായിട്ട് പഠിക്കും അവർ ഒരു കണക്കാണെങ്കിലും അല്ലെ ഒരു മലയാളം അടിച്ചു അടുത്ത് വിളിച്ചിരുത്തി ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് മാറ്റം ഉണ്ട് എന്നാൽ ജസ്റ്റ് പറ ഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ അവർക്ക് ബുദ്ധിക്കുറവ് കൊണ്ടായിരിക്കുകയില്ല അവർ ഇ സ്കൂൾ ഇരിക്കുമ്പോൾ കിട്ടാത്തത് അവർ ചിലപ്പം ടീച്ചറ് പഠിപ്പിക്കുമ്പോൾ ചിലപ്പം വർത്താനം പറയുകയോ അല്ലെ അപ്പുറത്തെ കുട്ടിയെ നോക്കി ഇരിക്കുകയോ എന്തെങ്കിലും ഒക്കെ ആയിട്ട് ശ്രദ്ധ മാറി പോകുന്നുണ്ട് അവർക്ക് കിട്ടാതെ വരും അപ്പം അവർ അയിനകത്ത് ഒരു പിന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് അപ്പം ട്യൂഷന് പോയി കഴിയുമ്പോൾ അവർ പ്രത്യേക ഒരു ശ്രദ്ധ കിട്ടും പിന്നെ അടിസ്ഥാനം സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ ടീച്ചർ പ്രത്യേകം ശ്രദ്ധിച്ചു എഴുതിപ്പിച്ചും വായിപ്പിച്ചും എല്ലാം പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർക്ക് കുറേയും കൂടെ നന്നായിട്ട് കിട്ടും ഇപ്പം ഒത്തിരി പിള്ളേരും ട്യൂഷന് ആശ്രയിക്കുകയാണ് അവർക്ക് സ്കൂളിൽ വരുന്ന പിന്നെ കുറവ് പരിഹകരിക്കാൻ വേണ്ടി ട്യൂഷന് പോകുന്നുണ്ട് അപ്പം ഞാൻ ആണെങ്കിലും എൻ്റെ കുട്ടി ഒമ്പതാം ക്ലാസിൽ പഠിക്കുന്ന കുട്ടിയാണ് ആ കുട്ടി ഏഴിലൊക്കെ പഠിക്കുമ്പം തീരെ മാർക്ക് കുറവാണ് എല്ലാ കുട്ടികളുടെയും കൂട്ടത്തിൽ പഠിച്ചു എത്താനായിട്ട് കൊച്ചിന് സാധിക്കുന്നില്ല മാർക്ക് ബുദ്ധിക്കുറവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബുദ്ധിക്കുറവ് ഇല്ല പക്ഷെ മാർക്ക് കിട്ടുന്നില്ല രണ്ടോ മൂന്നോ മാർക്കുകളൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന അവസ്ഥയിലായിരുന്നു ഇപ്പം ഇവിടെ നിന്ന് ഞാൻ പിന്നെ എഴാം ക്ലാസ് തൊട്ട് കൊച്ചിന് ട്യൂഷന് വിടാൻ തുടങ്ങി ട്യൂഷന് വിടുമ്പം അത്യാവശ്യം സ്കൂളിൽ നിന്ന് കിട്ടുന്ന കൂടാതെ അവിടം കൂടാകുമ്പോൾ അത്യാവശ്യം പഠിച്ചു എത്തി നല്ല മാർക്കിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ട് അപ്പം വിഷയം തിരിച്ചു ഒക്കെ എല്ലാ കുട്ടികളെയും പത്താം ക്ലാസിലേകൊക്കെ എത്തുമ്പം മിക്കവരേയും ഏതെങ്കിലും വിഷയങ്ങൾ ഒന്നോ രണ്ടോ വിഷയങ്ങൾ പാട് കാണും ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദിയോ അല്ലെങ്കിൽ കണക്കോ അയിനൊക്കെ അനുസരിച്ചവർ ട്യൂഷന് വിടും വിഷയം കേന്ദ്രീകരിച്ചു അവർക്ക് ക്ലാസ് കൊടുക്കുമ്പം അവർ നന്നായിട്ട് മാറ്റം വരുന്നുണ്ട് അപ്പം സ്കൂളിന് പുറത്തുള്ള ട്യൂഷൻ വളരെ നല്ലതാണെന്നാണ് എനിക്ക് അനുഭവത്തിൽ നിന്ന് കിട്ടിയത് ഞാൻ ആ അങ്ങനെ പോകുന്ന പിള്ളേരെ പ്രോത്സാഹിപ്പിക്കെ ചെയ്യാറുള്ളൂ ഒത്തിരി പിള്ളേരെൻ്റെ ക്ലാസ്സിലിരിക്കുന്ന പിള്ളേരും തീരെ പഠിക്കുകയില്ലാത്ത പിള്ളേരൊക്കെ ഉണ്ട് അവർ ട്യൂഷന് പോകുന്നവരും പോകാത്തവരും ഉണ്ട് ശ്രദ്ധയുള്ളവർക്ക് എന്തെങ്കിലും എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉള്ള കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് അവര് അത് ശ്രദ്ധിച്ചു പഠിക്കും ഒട്ടും ഇല്ലാതെ ഉഴപ്പാൻ പോകുന്നവർക്ക് താൻ മാത്രമേയുള്ളു ബുദ്ധിമുട്ട് വരുന്ന ഇപ്പം നന്നായിട്ട് അവർ അവിടെ പോയി പഠിച്ചത് കൊണ്ട് വരുന്നു പിന്നെ ക്ലാസിൽ വന്നിരുന്ന് ഇന്ന കുട്ടി ട്യൂഷന് പോകുന്നതാണെന്ന് പറയുമ്പം അവർക്ക് അതിൻ്റേതായ മാറ്റം പെട്ടെന്ന് ആ മേഖലെ കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ കുട്ടിടെ അടുത്ത് കൂട്ടത്തിൽ തന്നെ ഉയർന്നു വരുന്നുണ്ട് പിന്നെ വിദ്യാഭ്യാസമാണല്ലോ അത് നമുക്ക് ഇന്ന ഇടത്തു നിന്ന് മാത്രേ ശേഖരിക്കാവുന്നില്ല നമുക്ക് ഏതെല്ലാം മേഖലെ കിട്ടും അങ്ങനെയാണല്ലോ നമ്മള് പത്രത്തിൽ നിന്നും മാസികയിൽ നിന്നും ഒക്കെ ടിവിയിൽ നിന്നും ഒക്കെ നമ്മളെ അറിവ് സമ്പാദിക്കുന്നുണ്ടല്ലോ അപ്പം വിദ്യാഭ്യാസ ഒരു അറിവ് സമ്പാദിക്കലായതുകൊണ്ട് നമുക്ക് ഏത് മേഖലയിൽ നിന്നും കിട്ടുന്ന അറിവുകൾ മുഴുവൻ ശേഖരിച്ചാൽ ആ കുട്ടിക്ക് ജീവിതത്തിൽ വളരെ വിജയിക്കാനായിട്ട് സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്